മുപ്പത് എട്ട് രണ്ടായിരം പതിനഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇരുപത്തെട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്